ഒരു ബൈക്ക് യാത്രികൻ എന്ന നിലയില് ഞാൻ അഭിമുഖീകരിക്കാറുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളെന്നു പറയുന്നത് ഗതാഗത പ്രശ്നങ്ങള് മോശം കാലാവസ്ഥ കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകള് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ അവസ്ഥ എന്നു പറയുമ്പോള് കൂടുതലും റോഡുകള് മണ്ണിടിച്ചിലുകള്മൂലം മഴവെള്ളപ്പാച്ചിലില് ഒലിച്ചുപോയതു മൂലമൊക്കെ മൊത്തം കുണ്ടും കുുഴിയായിട്ടൊക്കെ നിറഞ്ഞിരിക്കയാണ് അപ്പോള് അതിലൂടെയൊക്കെ പോകുമ്പോള് അപകട സാധ്യത കൂടുതലാണ് അതുകൊണ്ട് ഹെൽമെറ്റ് വച്ചൊക്കെയാണു പോകാറുള്ളത് അതുപോലെ ഇതൊക്കെ തരണം ചെയ്യുകയെന്നു പറഞ്ഞിട്ടുണ്ടെങ്കില് ഗതാഗത പ്രശ്നങ്ങളാണെങ്കിലും മോശം കാലാവസ്ഥയൊക്കെ സമയത്താണെങ്കില് അമിത വേഗത ഇല്ലാതെ പതിയെ പോകുക എന്നതാണ് ഞാൻ ചെയ്യുക അപ്പോള് അതുപോലെ ഇടുങ്ങിയ റോഡുകളും മണ്ണിടിച്ചിലുകളൊക്കെ ഇണ്ടാവുന്ന സമയത്താണെങ്കില് കൂടുതല് ശ്രദ്ധ വണ്ടിയില് കൊടുക്കുകയും അതുപോലെ വേഗത കുറച്ച് ഓടിക്കാൻ ശ്രമിക്കുകയും ഇതൊക്കെയാണ് ചെയ്യുക അതുപോലെ ഒരു വന്യമൃഗം വന്നു മുന്പിലേക്കു ചാടുകയാണെങ്കിൽ എത്രയും വേഗം മറ്റൊരു വണ്ടിക്കാരനോടു സഹായം ചോദിക്കുകയും നമ്മുടെ ബൈക്ക് അവിടെ സൈഡിലേക്കു മാറ്റി വയ്ക്കുകയൊക്കെയാണു ചെയ്യുക എനിക്കങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു വന്യമൃഗത്തിൻ്റെ മുന്നിലേക്കു പെടുക അപ്പോള് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടു ഞാന് വണ്ടി ഒരു വഴിയോരത്ത് ഒതുക്കുകയും മറ്റൊരു വണ്ടിക്കാരനോടു സഹായം ചോദിക്കുകയുമാണു ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണു നമുക്ക് എടുക്കാൻ പറ്റുന്ന മുൻകരുതലുകള് എന്നു പറയുന്നത്